അവിടെ ഉത്സവങ്ങളാണെങ്കിലും അവിടെ ഡാൻസ് അതുപോലെ പരിപാടി ഗാനങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് ആസ്വദിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾക്ക് പോവുകയും നാടകമാണല്ലോ അതു കണ്ട് അവിടെ മറ്റുള്ളവരെ സഹായിക്കുകയും എല്ലാമായിരുന്നു അവിടെ ചെയ്തത് ഇപ്പോൾ പാട്ടാണെങ്കിലും അവർ പാട്ടുപാടുമ്പോൾ അവിടെ നിന്ന് ഡാൻസ് കളിച്ച് എൻ്റെ സന്തോഷം അങ്ങനെയാണ് ഞാൻ പുറത്ത് പ്രകടിപ്പിച്ചിരുന്നത്